എനിക്ക് പ്രിയങ്കരായ മലയാളി എഴുത്തുകാരിലൊരാളാണ് വൈക്കം മുഹമ്മദ് ബഷീര് അദ്ദേഹത്തെ നമ്മള് ബേപ്പൂര് സുല്ത്താന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നോവലുകളും കാര്യങ്ങളും വളരേയധികം ഹൃദയസ്പര്ശിയായിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവരുടെ എഴുത്തുകളെന്നു പറഞ്ഞാല് അവരുടേതായ ശൈലികളില് എഴുതുന്ന നോവലുകളാണ് അത് കുട്ടികള്ക്കായാലും മുതിര്ന്നവര്ക്കായാലും അത് വേഗത്തിൽ ഉള്ക്കൊള്ളാനുള്ള കഴിവ് നമുക്കാ നോവലുകളിലുണ്ട് വളരേയധികം ഭംഗിയായിട്ട് വളരേയധികം പച്ചയായിട്ടെഴുതുന്ന ഒരെഴുത്തുകാരനാണ് ബഷീറ് അതുപോലെ അദ്ദേഹത്തിന്റെ നോവലായ പാത്തുമ്മയുടെ ആട് ഞാന് സ്കൂളില് പഠിച്ച കാലത്ത് മലയാളം സെക്കൻടായ്ട്ട് ഞങ്ങള്ക്ക് ആ പുസ്തകവുണ്ടാരുന്നു പാത്തുമ്മയുടെ ആടുണ്ടാരുന്നു അതുപോലേ പിന്നേ ബാല്യകാലസഖി എന്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നോവലുകള് അദ്ദേഹത്തിന്റെത് വായിച്ചിട്ടുണ്ട് അതുപോൽതന്നെ അദ്ദേഹത്തിന്റെ പേരിലായിട്ട് നമ്മുടെ കോഴിക്കോട് ചെല്ലുമ്പോൾ അവിടെ ബഷീര് സ്മാരക റോഡെന്ന് പറഞ്ഞിട്ടൊരു റോഡ് നമുക്ക് കാണാന് കഴിയുന്നുണ്ട് അതുപോലെ സ്കൂളുകൾലൊക്കെ നമ്മള് ബഷീര് ദിനം ആഘോഷിക്കാറുണ്ട് ജൂലൈ അഞ്ച് ബഷീര് ദിനമായിട്ട് നമ്മളെല്ലാവരും ആഘോഷിച്ച് വരാറുണ്ട് അപ്പോൾ പിന്നേ അതുപോലെതന്നെ ഈ ബാല്യകാലസഖി എന്നത് ഒരു സിനിമയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീര്